ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെ കൂടുതലായിട്ടും ഇപ്പോൾ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് കൂടുതലായിട്ടും നല്ല പട്ടണങ്ങളിലേക്കൊക്കെ പോയിട്ട് വേണം ചികിത്സിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പം എൻ്റെയൊക്കെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കാരണം കോഴിക്കോട് ജില്ലയിൽ തന്നെ നമുക്ക് ഇടുങ്ങിയ വഴികളും വഴിയില്ലാത്ത റോഡുകളും പല പല എന്താ പറയുക ഇപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഇപ്പോൾ റോഡുകളും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു വീടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ വീടും അതേപോലെയുള്ള ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് കൂടുതലായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ കോളേജും പിന്നെ മിംമ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഴിക്കോട് ജില്ലയില് ഉള്ളത് അപ്പോൾ അവിടൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു വണ്ടി വിളിച്ചാൽ ചിലപ്പോൾ രാത്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങള് കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം വണ്ടി ഒന്നു വിളിച്ചാൽ ചിലപ്പോൾ വരില്ല അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കൂടുതലായിട്ടും എന്താ പറയുക നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഈ പട്ടണത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ തന്നെ നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ എടുത്തത് അല്ലെ വീടെടുത്തിട്ട് കൂടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം കാരണം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് പെട്ടെന്ന് ഓടി ചെന്നിട്ട് ആശുപത്രിയിലൊക്കെ കാണിക്കാമല്ലോ അതുകൊണ്ടാണ് എനിക്ക് താൽപര്യപ്പെടുന്നത്